ഈ പ്രദേശത്തെ വാർത്തകൾക്ക് ഒരു ഞങ്ങൾക്ക് വേണ്ടരീതിയിലുള്ള പിന്നെ മാധ്യമങ്ങളിൽ വേണ്ട രീതിയിലുള്ള റിപ്പോർട്ടൊന്നും ലഭിക്കുന്നില്ല പിന്നെ ഈ ഈ സ്ഥലത്ത് ഇവിടത്തെ സ്ഥലത്തെ ഈ ഭൂമിസംബദ്ധമായ കാര്യങ്ങളിൽ മാധ്യമങ്ങൾ വഴി ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പിന്നെ നേടാനായിട്ടുണ്ട് പിന്നെ കുറച്ചൊക്കെ കാര്യങ്ങൾ ഈ ഏകദേശമൊക്കെ ഞങ്ങൾക്ക് കുറേയൊക്കെ എല്ലാം നല്ലതായിട്ട് പ്രദേശത്തെ വാർത്തകളൊക്കെ കിട്ടുന്നുണ്ട് അല്ലാതെ ഇനിയും കുറച്ചും കൂടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ മാധ്യമങ്ങൾ വഴി ഞങ്ങൾക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങളായാലും മാധ്യമങ്ങൾ വഴി ഈ പുറം ലോകം അറിയാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെയുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളും അതും ഇതും ഞങ്ങളുടെ ഈ സ്ഥലത്തിൻ്റെ ഈ സ്ഥലത്തിൻ്റെതായിട്ടുള്ള ഭൂമി സംബദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ കസ്തൂരിരംഗൻ പ്രശ്നമായാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് ഞങ്ങൾക്ക് പിന്നെ പിന്നെ വാർത്താ മാധ്യമങ്ങളിലെ പിന്നെ ഉണ്ടാവേണ്ടതായിട്ടുള്ള അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഭൂമി സംബദ്ധമായ ഒരു ഒരുപാട് കാര്യങ്ങൾ അതെല്ലാമുണ്ട് അതൊന്നും പത്ര മാധ്യമങ്ങളിൽ കൂടെ വന്നിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടില്ല പിന്നെ ഈ ഈ ഞങ്ങളുടെ പ്രദേശത്തുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ കൂറെ കാര്യങ്ങൾ പിന്നെ പിന്നെ പിന്നെ വസ്തുവിൻ്റെ കാര്യങ്ങളായാലും ഭൂമിസംബദ്ധമായിട്ടുള്ള കാര്യങ്ങളായാലും ഒരുപാട് പിന്നെ ഉള്ള അങ്ങിനെയുള്ള ഒരുമാതിരിപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ കുറെ കൂടെ ഇനി മാധ്യമങ്ങൾ വഴി കുറച്ചും കൂടെ ഈ ഒറ്റപ്പെട്ട സ്ഥലം ഞങ്ങൾ ഇങ്ങ് ഇങ്ങ് അറ്റത്തുകിടക്കുന്ന പ്രദേശങ്ങളായതുകൊണ്ട് കുറച്ചും കൂടെ മാധ്യമങ്ങൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ഈ ദേശത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ മാധ്യമങ്ങൾ വഴി വരാനായിട്ട് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് പിന്നെ പത്രങ്ങൾ മാധ്യമങ്ങൾ അവർ അവരെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോ ഉരുളുപൊട്ടലായാലും ഉരുളുപൊട്ടൽ വന്നാലും ഒരു വെള്ളപ്പൊക്കത്തിൻ്റേതായിട്ടുള്ള അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ അവരുടെ അവർക്ക് സാധിക്കുന്ന രീതിയിൽ മാക്സിമം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പിന്നെ മാധ്യമങ്ങളിൽ കൂടെ വരാനായിട്ട് അവർ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ടിവി കുടെ ആയാലും അങ്ങനെ ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ചെറിയ ചെറിയ ആക്സിഡൻ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അത് മാധ്യമങ്ങളിൽ വരണ്ടെതായിട്ടുള്ള എന്തെങ്കിലുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ചിലതൊക്കെ അവർ അശ്രദ്ധ അശ്രദ്ധ കാണിക്കുന്നുണ്ട് പിന്നെ പിന്നെ കസ്തൂരിരംഗൻ പ്രശ്നം ഭൂമി പട്ടയത്തിൻ്റെ പ്രശ്നങ്ങൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ കൂടെ മാധ്യമങ്ങൾ വഴി ഈ കുറച്ചും കൂടെ ശ്രദ്ധചെലുത്തണം ശ്രദ്ധചെലുത്തേണ്ടതുണ്ട് പിന്നെ അല്ലാതെ നമ്മൾക്ക് വേറെ എന്തെങ്കിലും ഉള്ള കുറച്ചുള്ള കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ വഴി ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ശ്രദ്ധ ചെലുത്തുന്നുണ്ട് പിന്നെ ഓരോരോ സ്ഥലത്തിൻ്റേതായിട്ടുള്ള ഓരോ ദേശത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പഴ് അതിൻ്റേതായിട്ട് കുറച്ചും കൂടെ ഈ ഭൂമിസംബദ്ധമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ പട്ടയ പ്രശ്നം പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടെ ശ്രദ്ധചെലുത്തി മാധ്യമങ്ങൾ അവർ കുറച്ചും കൂടെ ഒരു ഉത്സാഹത്തോടെ കുറച്ചും കൂടെ ഒരു ശ്രദ്ധചെലുത്തി ഓരോരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടു പോകാനും അവർക്ക് പിന്നെ ഓരോരോ ദേശത്തിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഇതൊക്കെ കാര്യങ്ങൾ അറിയുമ്പോൾ അവർ മാധ്യമങ്ങൾ അതിന് മുൻകൈയ്യെടുത്ത് കുറച്ചും കൂടെ പുറംലോകം അറിയേണ്ട രീതിയിൽ അവർ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകേണ്ടതാണ് ഒരു ഒരുപാട് കാര്യങ്ങളും നല്ല കാര്യങ്ങളും മാധ്യമങ്ങൾ വഴി ഒരുപാടു കാര്യങ്ങൾ പുറംലോകം അറിയുന്നുണ്ട് പിന്നെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ടുകൊണ്ടു പോയിട്ട് നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് നമ്മൾ അറിയാത്ത ദൂരെ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അറിയുന്ന അത് അറിയാത്ത കാര്യങ്ങൾ മാധ്യമങ്ങൾ വഴി ആണ് നമ്മൾ കൂടുതലായിട്ട് അറിയുന്നത്